ഞങ്ങൾ ഈയിടെ ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു രണ്ടുമാസത്തിനുള്ളിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ചേച്ചിൻ്റെ കസിൻസ് ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാർ ഒരു ഒരു മല കയറാൻ വേണ്ടി പോയിരുന്നു അപ്പം വയനാട് ആയിരുന്നു സ്ഥലം അപ്പം അറിയാമല്ലോ വയനാട് എന്ന് പറയുന്നത് പൊതുവേ മലയുടെ മുകളിൽ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറാൻ നേരത്ത് കുഴപ്പം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ കയറി ഒരു പകുതിയിൽ ഒക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ശ്വാസം കിട്ടാതെ ആവുകയും ഭയങ്കരമായിട്ട് ശ്വാസംമുട്ട് അനുഭവ അനുഭവപ്പെടുകയും ചെയ്തു അവൾ തളർന്ന് പോകുന്നതു പോലെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് തീരെ നടക്കാൻ വയ്യ പിന്നെ ഞങ്ങളുടെ കൈയിൽ ഉണ്ടായിരുന്ന വെള്ളവും അപ്പോഴത്തേക്കും തീർന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ അധികം പേടിച്ചു കാരണം അവളെയും കൊണ്ട് താഴേക്ക് ഇറങ്ങേണ്ടത് ഞങ്ങൾ ഒത്തിരി ദൂരം മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കൊണ്ട് താഴേക്ക് ഇറങ്ങാനും പ്രയാസം ആയിരുന്നു അതോടൊപ്പം തന്നെ അത് വണ്ടിയൊന്നും കയറാത്ത ഒരു സ്ഥലവും കൂടെയായിരുന്നു ഒരു കുറച്ച് വെള്ളം കുടിച്ചേച്ച് റസ്റ്റ് ചെയ്താൽ അവൾക്ക് ഓക്കേ ആകും എന്ന രീതിയായിരുന്നു പക്ഷേ ഞങ്ങളുടെ കൈയിൽ വെള്ളം തീർന്നുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഒത്തിരി താഴേക്ക് കുറച്ച് പേർ കുറേ താഴേക്ക് ഓടി നോക്കി അപ്പോഴാണ് അവിടുന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവരുടെ കൈയിൽ നിന്നും വെള്ളം വാങ്ങി കൊടുത്ത് അവളെ കുറച്ച് നേരം അവിടെ കുറച്ചുകൂടെ താഴേക്ക് നിർത്തി ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ ഇരുത്തി അതിനു ശേഷം അവളുടെ കാൽ ഒക്കെ ഒന്ന് ചൂടാക്കി കൊടുത്ത് അവളുടെ ശ്വാസം നേരെ ആകുന്നത് വരെ ഞങ്ങൾ അവളുടെ കൂടെ ഇരുന്ന് അതിന് ശേഷം പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു പിന്നീട് അവൾക്ക് പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ആ ഒരു ആ ഒരു സമയത്ത് ഞങ്ങൾ വളരെ അധികം പേടിച്ചു ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാരണം അത് ഭയങ്കരം അപ്രതീക്ഷിതം ആയിട്ട് കാരണം ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ആണെങ്കിൽ ഒരു വണ്ടി പോലും താഴേക്ക് കയറിക്കു മുകളിലേക്ക് കയറി ഇറങ്ങുകയോ ചെയ്യാത്ത ഒരു കുന്നായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആയിപ്പോയി ശരിക്കും നന്നായിട്ട് പേടിച്ച ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ഇത് പിന്നെ ഞങ്ങൾ ട്രെക്കിങ്ങിന് ഇവിടെ ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി പിക്ച്ചറുകൾ എടുക്കാറുണ്ട് ഇപ്പം ഫോണിൽ എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ക്യാമറയും ഉണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടിലുമാണ് ഞങ്ങൾ എപ്പോളും പിക് എടുക്കാറ് ഞങ്ങൾ ഞങ്ങളുടെയും പിക് എടുക്കും അതേപോലെ ഞങ്ങൾ അവിടെ കാണുന്ന എല്ലാത്തരം കാഴ്ച്ചകളും പെട്ടെന്ന് ചിത്രങ്ങളാക്കി ഓർമ്മകൾ ആക്കി സൂക്ഷിച്ചു വയ്ക്കാൻ ഇഷ്ട്ടപ്പെടുന്ന ഒരാൾ ആണ് ഞാൻ അപ്പോൾ ഞങ്ങൾ അന്നൊക്കെ പോയതിൻ്റെ ഒത്തിരി ചിത്രങ്ങൾ ഇപ്പോഴും എൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട് പിന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും ഇതെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ കണ്ട അനുഭവങ്ങൾ മറ്റുള്ളവർക്കും കൂടെ പങ്കുവയ്ക്കുമ്പോൾ അത് അതിൻറ്റെതായ രീതിയിൽ ഉള്ള ഒരു ഭയങ്കരമായ സന്തോഷത്തിൻ്റെ ഒരു അനുഭൂതി ഉളവാകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും വാട്ട്സ്ആപ്പിലും എല്ലാത്തിലും തന്നെ ഞാൻ ഈ ഫോട്ടോകൾ എല്ലാം പോസ്റ്റ് ചെയ്ത് അവർ പറയുന്നത് എല്ലാം കേൾക്കാറും ആസ്വദിക്കാറും ഒക്കെ ഉണ്ട് ഞാൻ ഒത്തിരി ഫോട്ടോകളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് എല്ലാ മലയും കുന്നും ഒക്കെ ഞങ്ങൾ ട്രെക്കിങ്ങിന് പോകുമ്പോഴാണ് ഞങ്ങൾ മെയിനായിട്ട് ക്യാമറ ഒക്കെ എടുത്ത് വയ്ക്കുക അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഉണ്ട് ഞങ്ങൾ അതിനെ ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ ഒക്കെ ഓരോ അതൊക്കെ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ ഞങ്ങൾ ഇടയ്ക്ക് നോക്കി നിൽക്കാറുണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ വീഡിയോകൾ ആക്കാനും ശ്രമിക്കാറുണ്ട്